കേരളം എന്നല്ല കേരളത്തിൽ മലയാളം പോലെ ഏത് സംസ്ഥാനം എടുത്താലും അവരുടെ ഭാഷ അവിടുത്തെ സാംസ്കാരിക തത്വത്തെ വരെ നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നോക്കിയാൽ പോലും ഇപ്പോൾ കേരളത്തിലുള്ള ഓരോ ജില്ലകളിലും അവരവരുടെ ഒരു രീതിയുണ്ട് ഒരു ശൈലിയുണ്ട് സംസാരത്തിൽ മലയാളത്തിൽ തന്നെ ഇപ്പോള് തിരുവനന്തപുരത്തെ മലയാളം ഭാഷ പോലെയല്ല കോഴിക്കോടുള്ള ആൾക്കാര് സംസാരിക്കുന്ന മലയാള ഭാഷ എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസിലാക്കി ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മള് മലയാളികള്ക്കുണ്ട് ഇതിനെ തുടർന്ന് മലയാളികൾ വളരെ നല്ലൊരു നിലയിലാണ് എവിടെ ചെന്നാലും കാണാൻ പറ്റുക ആ ആ ഒരു ആ ഒരു എന്ന് കണക്ഷൻ വരാനുള്ള മെയിൻ കാരണം ഈ മലയാളം എന്നൊരു ഭാഷ മാത്രമാണ് ഇപ്പോള് വെളിയിലൊരു നാട്ടിൽ പോയാൽ പോലും വെളിനാട്ടിൽ പോയാൽ പോലും അവിടെ ഇപ്പോള് മറ്റൊരു മലയാളിയെ നമ്മൾ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോള് അതിലെ മെയിനൊരു കാരണം നമ്മുടെയീ ഭാഷ തന്നെയാണ് അങ്ങനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരമെന്നോ കോഴിക്കോടെന്നോ ഒരു വേർതിരിവവിടെ ഒട്ടും ഉണ്ടാവില്ല ഇപ്പോള് അതിനൊക്കെ നമ്മുടെ ഈ സംസ്ഥാനത്തെ ഈ മലയാളം ഭാഷ തന്നെയാണ് മെയിൻ കാരണമായിട്ട് വരുന്നത് ഇപ്പോള് ഇപ്പോള് പല പല കലകളും എല്ലാമുള്ള നമ്മുടെയീ കേരളത്തിൽ ഓരോ നാട്ടിൽ ചെന്നാലും ഓരോ രീതിയിലുള്ള കലകൾ കാണാം ഇപ്പോൾ തിരുവനന്തരത്ത് ചെന്നാൽ ഒരു തരത്തിലുള്ള കലകൾ അപ്പോള് അതേപോലെ നമ്മുടെ വടക്കോട്ട് ചെന്നാൽ വടക്ക് വടക്ക് സ്ഥലങ്ങളിൽ പല പല രീതിയിലുള്ള കലകൾ കാണാൻ സാധിക്കും അപ്പോള് അതൊക്കെ ഓരോ സ്ഥലത്തും മാറി മാറി വരുന്നതും അതിനെയൊക്കെ ഒന്നിപ്പിക്കുന്നത് നമ്മുടെയീ ഭാഷയ്ക്ക് വളരെ വലിയൊരു പങ്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാന് വിശ്വസിക്കുന്നത്